ഏഴു ലക്ഷത്തി എഴുപത്തയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തി നാല് ഒരു ലക്ഷത്തി എമ്പത്തെട്ടായിരത്തി അറുന്നൂറ്റി അമ്പത് രണ്ടു ലക്ഷത്തി നാല്പത്തേഴായിരത്തി എഴുപത്താറ് മൂന്ന് ലക്ഷത്തി അമ്പത്തേഴായിരത്തി നാന്നൂറ്റി മുപ്പതി രണ്ട് രണ്ടു ലക്ഷത്തി എഴുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ച്